ഹലോ എൻ്റെ ബാങ്കില് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചിട്ടൊന്ന് പിന്നേ മൊബൈൽ നമ്പർ പരിശോധിച്ചിട്ട് ഞാനിപ്പളാണ് പൈസ ഫോണിൽ അക്കൗണ്ട് ഗൂഗിൾ പേ ആക്കിയത് എൻ്റെ ഫോൺ അത്കൊണ്ടൊന്ന് പിന്നെ ഇതുവരെയും പേയ്മെന്റ് വന്നിട്ടുവില്ല കുറെ കാലമായി ആക്കി അതാക്കിയത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കുറച്ച് കാലങ്ങളായി ഇത് വരേയും പൈസ അതിലേക്ക് വരുന്നും ഇല്ല നമുക്ക് എടുക്കാനും പറ്റുന്നില്ല അതിനെന്ത് ഇപ്പം എന്താ ചെയ്യുക എന്നാ ഈ ഇതൊക്കെ പേയ്മെന്റ് കിട്ടിയില്ലേൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എൻ പിന്നെ കൃത്യമായി നിങ്ങള് പരിശോധിച്ചിട്ട് അത് പൈസ അക്കൗണ്ടിലുണ്ടോന്ന് നോക്കിയിട്ട് നിങ്ങളല്ലേ റെഡിയാക്കിത്തരേണ്ടത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലൊ ഞങ്ങൾക്ക് അത് അറിയില്ലല്ലൊ കൃത്യമായി മൊബൈൽ നമ്പറും ബില്ലും തുകയും അടച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളല്ലെ പരിശോധിക്കേണ്ടത് ഞങ്ങളെന്താ ചെയ്യേണ്ടത് അതിന് ഇനി ആരോടേലും വിളിച്ച് ചോദിക്കണോ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കേണ്ടത് നിങ്ങളല്ലേ പിന്നെ ഇത് മൊബൈൽ നമ്പറും പിന്നെ ആധാർക്കാർഡുമൊക്കെ ശരിയാണോന്ന് നോക്കണ്ടത് നിങ്ങളുടെ കടമ ഉത്തരവാദിത്തവല്ലെ ഞങ്ങളുടെ ഉത്തരവാദിത്തവല്ലല്ലോ നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ ഞങ്ങളെന്താ ചെയ്യുക ഞങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടണ്ടേ